നമ്മുടെ മഴ ഭയങ്കരമായിട്ട് നമുക്ക് മഴക്കാല മഴയും ചൂടു ആണ് നമ്മുടെ കൃഷിയെ വല്ലാത്ത രീതിയിൽ ബാധിക്കുന്നത് ഇപ്പം വേനൽകാല ഒക്കെ ആവുമ്പോൾ വാഴയൊക്കെ വെക്കു ആണെങ്കിൽ നമുക്ക് പിന്നെ വെള്ളം നനച്ചു കൊടുക്കണ്ട ആവശ്യം വരും കാരണം ഭയങ്കര വേനലാകുമ്പോൾ അവിടെയൊക്കെ ഉണങ്ങാനുള്ള ചാൻസ്ണ്ട് അപ്പോൾ നമുക്ക് നനഞ്ഞിരിക്കണം വേരൊക്കെ നനഞ്ഞ് അത്യാവശ്യം അതിന് വെള്ളം വേണം അപ്പം നമ്മളൊരു രണ്ട് ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ മൂന്ന് ദിവസം കൂടുമ്പോൾ നമുക്ക് നന്നായി നല്ല രീതിയിൽ നനച്ചു കൊടുക്കണം ആ സമയത്ത് രണ്ട് മൂന്ന് വേനൽ മഴ കിട്ടുക ആണെങ്കിൽ കാറ്റൊന്നും ഇല്ലാത്ത രീതിയിലുള്ള വേനൽ മഴയാണ് കിട്ടുന്നതു എങ്കിൽ ഓക്കേ നല്ല നല്ലൊരുപകാരമായിരിക്കും പക്ഷെ കാറ്റോടു കൂടിയുള്ള മഴയാണെങ്കിൽ ഈ കുലച്ചു വരുന്ന സമായമാണ് അപ്പം ആരും വലിച്ച് കെട്ടില്ല വാഴ കിട്ടിയില്ലെങ്കിൽ കുല അതായത് വാഴ ഒടിഞ്ഞു പോകാൻ ചാൻസുണ്ട് നല്ല കാറ്റിൽ അപ്പം അങ്ങന നല്ല കാറ്റോടു കൂടി ഇടിയും മഴയൊക്കെ വരുക ആണെങ്കിൽ വാഴ ഒത്തിരി നാശ നഷ്ടം നമുക്ക് സംഭവിക്കും ആ സമയത്ത് അതുപോലെത്തന്നെ നമുക്ക് പിന്നെ കൃഷിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം കൊയിതിട്ടഴിയുന്നോർക്ക് ചിലപ്പം മഴ പെയ്യുമ്പം കൊയിതിട്ടത് മുഴുവൻ വെള്ളം ആ ചിലപ്പം ഒരു അന്ന് തന്നെ അവർ ചെ നല്ല വെയിലായിരിക്കുമ്പയിരിക്കും കൊയിതിടുക പക്ഷെ അന്ന് മഴ പെയ്താൽ അവർക്ക് ബുദ്ധിമുട്ടാണ് അപ്പം നമ്മുടെ കാലാവസ്ഥ നമ്മുടെ രീതീനെ ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പോഴത്തെ കാലാവസ്ഥ പണ്ട് കാലത്തെല്ലാം നേരെ നേരെയാർന്നു ഇപ്പം അങ്ങനെയല്ല തോന്നിയ പോലെ മഴ തോന്നിയത് പോലെ വെയില് ന്യുന മർദ്ദം അങ്ങനെ ഓരോന്നോരോന്നാണ് വരുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് കാലാവസ്ഥയെ അത് നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇപ്പം ആയിനനുസരിച്ചാണോ ഓരോരുത്തർ ചെയ്തത് കൂടുതൽ പേരും നല്ല രീതിയിൽ നോക്കിയിട്ടല്ലെങ്കിൽ അപ്പം തന്നെ പിന്നെ നെല്ല് മാറ്റി അപ്പം തന്നെ അതിനെ വേർതിരിക്കാനുള്ള മെഷിനൊക്കെ വന്നോണ്ട് കുറെ ഉപകാരം ഉണ്ടതിൽ എങ്കിലും ഇങ്ങനെയൊക്കെയാണ് കാരണം കാര്യങ്ങൾ വരുന്നത് അപ്പം നമ്മൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലാവധി കാലാവസ്ഥക്കനുസരിച്ചാണ് ഇപ്പം കൃഷിയൊക്കെ ഇറക്കുന്നത് കാരണം അങ്ങനെ ഇറക്കിയാലേ കാര്യം ഉള്ളൂ നമുക്ക് കാലാവസ്ഥയൊന്നും മുൻകൂറായി വിചാരിക്കുന്നതുപോലെ ആയിരിക്കില്ല നടക്കുന്നത് അപ്പം അതിനനുസരിച്ച് ചെയ്യുന്നുണ്ട്